ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ട്വിറ്റർ ഒക്കെയാണ് ഇപ്പോഴത്തെ പുതു തലമുറയ്ക്ക് വാർത്തകൾ ലഭിക്കുന്നതിനുള്ള ഒരു ഉപാധി നേരത്തെയൊക്കെ ന്യൂസ് പേപ്പറും ടി വി ഒക്കെ കണ്ടിട്ടാണ് വാർത്തകൾ അറിഞ്ഞോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും നോക്കാൻ നേരമില്ല ഫേസ്ബുക് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ട്വിറ്റർ വഴിയോക്കെ ആണ് ആൾക്ക് ന്യൂസുകൾ ലഭ്യമാക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മക്കൾ രണ്ട് പേരും അവർ പത്രം ഒന്നും വായിക്കത്തില്ല പക്ഷേ അവർ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ട്വിറ്ററിലൂടെയും ഒക്കെ തപ്പി എടുത്ത് ന്യൂസുകൾ അറിയും അതൊരു പ്രത്യേക ജെനറേഷൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഇതൊന്നും ഒരു ഇതൊന്നും അത്ര ഇതായിട്ടില്ല സ്വീകാര്യമായിട്ടില്ല അവർ കൃത്യമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുകയും അത് പക്ഷേ അതിൽ വരുന്ന ന്യൂസുകൾ അത്ര ഇതാണെന്ന് പറയാൻ പറ്റൂല വിശ്വാസ്യത ഉണ്ടെന്നു പറയാൻ പറ്റത്തില്ല കാരണം ഫേക്ക് ന്യൂസ്സ് ഒത്തിരി വരുന്നുണ്ട് നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല ഈ ഫേസ് ഫേസ്ബുക്കിലെ എന്ത് തരം തെറ്റായ വാർത്തകൾ വരുന്നുണ്ട് അതിനെതിരെ ആര് നടപടിയെടുക്കുന്നു ഒന്നും അറിയത്തില്ല ഓരോരുത്തർ ഓരോ ദിവസവും ഓരോന്നിടും അവരെ കരി വാരി തേക്കാൻ ഇങ്ങോട്ട് ഇടുന്നു ഇതിനു പകരം അങ്ങോട്ട് ഇടുന്നു അങ്ങനെ ആണ് ഫേസ്ബുക്കിൽ ഒക്കെ വരുന്നത് ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഒക്കെ അങ്ങനെ തന്നെ ആണ് പരസ്പരം ചെളി വാരി എറിയുന്ന വാർത്തകൾ അല്ലാതെ ഇതൊന്നും സത്യസന്ധമായിട്ടോ അത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നത് അല്ല ഒരു ന്യൂസിനെയും മീഡിയസിനെയും ഇപ്പം വിശ്വസിക്കാൻ പറ്റത്തില്ല അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അവർ ഓരോന്നിടും അല്ലാതെ ഇതിലൊന്നും വിശ്വാസ്യത കിട്ടുന്നില്ല